ആ അത് ഇന്ന് ഹലോ ആ അതെ പറഞ്ഞോളൂ ആ ഓക്കെ ആ ഓക്കെ സാർ ആ എന്നത്തേക്ക് ആണ് സാർ എങ്ങനെ ആ നമുക്കിപ്പം ഏറ്റവും ലോ വരുന്ന ഒര് തെർട്ടി തൗസൻ്റ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമുക്ക് നോർമൽ ഇപ്പോൾ വീഡിയോസ് അങ്ങന ഒന്നും ഇല്ലാണ്ട് നോർമല് ഫോട്ടോസ് മാത്രമാണെങ്കിൽ ഒരു മുപ്പതിനായിരത്തി ആ ഒരു ബഡ്ജറ്റിൽ നമ്മൾ കോഴിക്കോട് ആണ് ആ നമ്മൾ കോഴിക്കോടാണ് കോഴിക്കോട് നമ്മൾ മറ്റെ നിയർ ആയിട്ട് വരും ആ നമുക്ക് ഓൾമോസ്റ്റ് ഒരു പത്ത് മണിവരെയാണ് നമ്മൾ ഈ ഷോപ്പ് ഓപ്പൺ ആയിരിക്കുക ആ നൈറ്റ് പത്തു മണി വരെ നമ്മൾ ഒരു ഒമ്പത് മണി ആവുമ്പം തുറക്കും ആ ഓക്കെ

ആ ഓക്കെ നിങ്ങൾ സ്ഥലം ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാവും അല്ലെ ആ ഓക്കെ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് നോക്കുന്നത് ഇങ്ങനെ ഡ്രോണ് കാര്യങ്ങൾ ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടോ അതോ വീഡിയോസ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ ഓക്കെ വീഡിയോസ് ആൽബം എല്ലാം വേണം അല്ലെ ഓക്കെ നമുക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അപ്പം എത്രയാണ് ഓ ആ ബഡ്ജറ്റിൽ ഓൾമോസ്റ്റ് എല്ലാം നടക്കില്ല നമുക്ക് ജസ്റ്റ് വിഡിയോസും ഫോട്ടോസും മാത്രം ആയിട്ട് ആണെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്തുതരാം പിന്നെ ഡ്രോണും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല നമുക്ക് ഒരു ഫിഫ്റ്റി ഫൈവ് ആ ഒരു ബഡ്ജറ്റിലേക്ക് ആണ് പറ്റുക ക്വാളിറ്റിയിൽ ചെയ്യാം പക്ഷെ നമുക്ക് എല്ലാ ഫെസിലിറ്റിസിലേക്ക് എത്തിക്കാൻ പറ്റില്ല അത്രയേ ഉള്ളൂ ആ പിന്നേ ആ ഓക്കെ എന്നത്തേക്കാണ് പ്രോഗ്രാം എന്നത്തേക്കാണ് ഇപ്പം പ്രീ വെഡ്ഡിംഗ് ഷൂട്ടും ആ വെഡ്ഡിംഗ് ഷൂട്ടും എല്ലാം കൂടെ ഒന്നിച്ച് ഇതാക്കാനാണോ ആ അതാണ് ഞാൻ ചോദിച്ചത് എപ്പം ഇതു രണ്ടും നമുക്ക് തന്നെ ആണോ വരുന്നത് ആ ഓക്കെ

സാർ അത് എന്തായാലും ഇങ്ങോട്ട് വരൂ എന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം സാർ എത്തുമ്പം ഒന്ന് വിളിക്ക് ഓക്കെ സാർ താങ്ക് യു